ഹലോ ആ ഇവിടെ വന്നുന്നോടി ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ദേ ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ ആ എവിടെ ആണോ എന്നിട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എവിടെയാണ് ആ നമ്പരൊന്നു പറഞ്ഞേ എത് ക ഏതാ കളർ നമ്പർ ആ എനിക്ക് കാണാൻ മേലാ

ശരി എന്നാൽ ഓക്കെ ആ ആ ആ ഇപ്പോൾ ഞാൻ കണ്ടു കേട്ടോ ആ ശരി എന്നാൽ ഓക്കെ